പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരം പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇരുപത്തേഴ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇരുപത് പത്ത് രണ്ടായിരത്തി മൂന്ന്